ടെക്നോളജി എന്നു ചോദിക്കും ടെക്നോളജി വളരെ അത് പഠിക്കാനായിട്ടുള്ള കാര്യങ്ങൾക്കാണ് വളരെ ഉപകാരപ്പെട്ടിട്ടുണ്ട് ഇപ്പം എന്തെങ്കിലും പണ്ടൊക്കെ സ്കൂളിൽ പഠിക്കുമ്പോൾ മാത്സിൻ്റെയൊക്കെ എന്തെങ്കിലുമൊക്കെ പ്രോബ്ലം ചെയ്യണമെങ്കിൽ ചിലപ്പോൾ ചോദിക്കാനായിട്ട് ആരുമൊക്കെ ഇല്ലായിരുന്നു അപ്പോൾ അന്നേരമൊക്കെ ആണെങ്കിൽ ഗൂഗുളിനോടൊക്കെ റിസർച്ച് കൊടുക്കുകയാണെങ്കിൽ അപ്പം ബൈജൂസ് നേരത്തെ ഒക്കെ ബൈജൂസ് ഉണ്ടായിരുന്നു ബൈജൂസിലൂടെ നമുക്കാണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ കിട്ടണമെന്ന് അതൊക്കെ ആണെങ്കിൽ നമ്മൾ ചെന്നു ചോദിച്ചു നമുക്ക് ഗൂഗിളിൽ ചോദിച്ചിട്ട് നമുക്ക് അത് പക്കയായ റിസൾട്ട് നമുക്ക് കിട്ടുമായിരുന്നു അപ്പം പഠിക്കുന്ന കാര്യത്തിൽ പിന്നെ പറയുന്നത് ഇപ്പോൾ വേണമെങ്കിൽ എ ഐ ഒക്കെ വന്നതോടെ നമുക്ക് ചാറ്റ് ജി പി ടിയിലൂടെ നമുക്ക് ചോദിച്ചു നമുക്ക് ഓൾമോസ്റ്റ് ഓൾമോസ്റ്റ് ഒരു കൃത്യ ചോദ്യത്തിനുള്ള കൃത്യ ഉത്തരം തന്നെ നമുക്ക് കിട്ടാൻ സാധിക്കും ചാറ്റ് ജി പി റ്റി വഴിയൊക്കെ ആണെങ്കിൽ എ ഐ പലതരം ടൂൾസൊക്കെ ഉണ്ട് നമുക്ക് ഇങ്ങനെ ചോദ്യങ്ങളൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഉത്തരം ഇപ്പോൾ കോളേജ് ഡിഗ്രി പഠിക്കുകയാണെങ്കിൽ പോലും ഇപ്പം ഞാൻ പറയാം ഇപ്പം റെസ്യൂമിൻ്റെ ഒക്കെ ഫോർമാറ്റിലൂടെ നമുക്ക് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഫോർമാറ്റ് ചെയ്തു കിട്ടാനാണെങ്കിൽ നമുക്ക് എ ഐ ആപ്പുകളുടെ നമുക്ക് കിട്ടാൻ സാധിക്കും